രാഷ്ട്രീയം പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ് എന്നാലും ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മെയിനായിട്ടും പ്രധാനമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഭരണത്തിൽ നോക്കിയ നമുക്ക് കാണാൻ പറ്റ്ന്നത് ഒന്ന് ബി നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിയുടെ പാർട്ടിയും പിന്നെ ഒന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന എൻ ഡി എ കോൺഗ്രസ് പാർട്ടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാലും ഇവരുടെ മാറിമാറിയുള്ള ഭരണമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോഴുള്ള അവരുടെ പ്രവർത്തനങ്ങളായാലും തികച്ചും ഇപ്പോൾ നമ്മളുടെ നാട് ഭരിക്കുന്നത് ബി ജെ പി പാർട്ടിയാണെങ്കിലും അവർക്ക് അവരുടേതും മൊത്തവും നല്ല കാര്യങ്ങൾ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല നല്ലതും അതിന്റേത് കൂടെ ആയ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു ഹിന്ദുത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മളെ രാജ്യം മതേതരരാജ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടും മതേതരത്തിന് ഉപരി ആയിട്ട് ഏത് ഏതോ ഒരു ഒരു മതം മാത്രം നമ്മൾ പിന്തുടരുക എന്ന ഒരു രീതിയിലേക്ക് ബി ജെ പി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതാണ് മെയിനായിട്ട് അവരുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മറ്റ് ഇന്റർനാഷണൽ അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിലായാലും മോദി വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ എനിക്കദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുക നരേന്ദ്രമോദിയുടെ പേര് തന്നെയാണ് അതിപ്പോൾ അദ്ദേഹത്തിനെ കണ്ടാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങളൊന്നുമങ്ങനെയില്ല കാരണം എനിക്ക് രാഷ്ട്രീയം വളരെ താല്പര്യമുള്ള മേഖലയല്ല എന്നാലും അദ്ദേഹത്തിന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഒരു ജനാധിപത്യരാജ്യമെന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ച് ഒരു പരിധി വരെ നമ്മൾ നാട്ടിൽ നമ്മൾ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന പക്ഷമായാലും ഭരണപക്ഷമായാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ നടത്തിത്തരുന്നുണ്ട് എന്നാൽ കുറേയൊക്കെ നമുക്കെന്ത് പറയുക ഒരു ഏകീകൃത അതായത് ഒരു മതം തന്നെ ഫോളോ എന്ത് പിന്തുടരുക എന്നൊരു സംഭവം അവർ കൊണ്ടുവരുന്നുണ്ട് അതൊന്ന് മാറ്റിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതുതന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെന്ന് എനിക്ക് പറയാൻ സാധിക്കും